കോഴിക്കോട് ജില്ലയില് അതായത് ഞങ്ങളുടെ ജില്ലയില് എന്നൊക്കെ വെച്ചിട്ടുണ്ടങ്കിൽ മെയിൻ ആയിട്ട് നേരിടുന്ന വെല്ലുവിളി എന്തൊക്കെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് പിന്നെ മെയിൻ ആയിട്ട് ട്രാഫിക് ബ്ലോക്ക് അത് വലിയ ഒരു പ്രശ്നം ആണ് പിന്നെ അതേപോലെ റോഡ് പണി അങ്ങനത്തെ പിന്നെ മെയിൻ ആയിട്ട് ആക്സിഡൻറ് കാര്യങ്ങളൊക്കെ കൂടുതൽ ആയിട്ട് നടക്കുന്നുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഈ പ്രൈവറ്റ് ബസും അതായത് ഭയങ്കര മത്സരങ്ങള് കാര്യങ്ങളൊക്കെ ആണ് അപ്പം അതൊക്കെ വലിയ ഒരു വെല്ലിവിളി ആകുന്നെ ഈ മത്സരങ്ങൊളൊക്കെ നമുക്ക് ഒരുപാട് പേർക്ക് നമുക്ക് വളരെ ബുദ്ധിമുട്ട് ആണ് അതായത് പല ആക്സിഡൻറ് കാര്യങ്ങളും നടക്കുമ്പോൾ ഒന്നും അറിയാത്ത ആൾക്കാര് അതായത് നടന്ന് പോകുന്നവരെ ഇടിച്ചിടുന്ന ഒരു കാലമാണ് അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നുണ്ട് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ അതായത് എല്ലാവരും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ട് പോകണം എന്ന് ഒക്കെ പറയും അപ്പോൾ അതായത് വയനാട് അങ്ങനത്തെ സൗജന്യ മെഡിക്കൽ കോളേജിലേക്ക് ഉള്ള ആൾക്കാര് എല്ലാം കൊണ്ട് പോയിട്ട് ഉണ്ടെങ്കിൽ വലിയ നല്ല രീതിയില് ഉള്ള ഒരു പിന്നെ ഇത് ഒന്നും അല്ല എല്ലാവർക്കും ഒരു പോലെ ഒന്നും അല്ല ചികിത്സ കിട്ടുന്നത് പലർക്കും പല ഇതാണ് പക്ഷേ അത്യാവശ്യം നല്ലോണം നോക്കുന്നുണ്ട് നമുക്ക് അത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷേ തിരക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അതായത് വയസ്സായവർക്ക് ഒക്കെ അത് വലിയ ഒരു ബുദ്ധിമുട്ട് ആണ് അങ്ങനെ പല പ്രശ്നങ്ങളുമുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ജലമലിനീകരണം അത് വലിയ ഒരു പ്രശ്നമാണ് പിന്നെ കോറ ക്വാറി മലീകരണം തോടുകളിൽ ഉള്ള അതായത് വെസ്റ്റ് തള്ളല് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒക്കെ വളരെ കൂടുതൽ ആയിട്ട് ഉണ്ട്